ഞാൻ ഉപയോഗിക്കുന്നത് മൊബൈൽ ഡാറ്റയാണ് വൈഫൈ കണക്ഷൻ മുന്നേ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ നമ്മൾ വൈഫൈ കണക്ഷൻ എടുക്കുമ്പോൾ വീട്ടിൽനിന്ന് മക്കളും ഫോണെടുത്താൽ പിന്നെ അത് വെയ്ക്കുന്നില്ല ഫുൾ ടൈം ഫോണിൽ തന്നെ ആകുന്നുണ്ട് കുട്ടികൾക്ക് വിനോദം വെറും ഫോണ് മാത്രമല്ലല്ലോ കളികളിലേർപ്പെടണം അതെല്ലാം അവരുടെ കുറഞ്ഞ് തുടങ്ങി അപ്പം നമുക്കും ടെൻഷനായി പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാനങ്ങനെ ഓഫീസിൻ്റെ വർക്കും കൂടെ ചെയ്യുന്നതു കൊണ്ടെനിയ്ക്ക് വൺ പോയന്റ് ഫൈവ് ഓ ഒന്നര ജി ബി കൊണ്ടു തന്നെ എൻ്റെ ഒരു ദിവസം അത്രയ്ക്കെ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ ചില സമയങ്ങളിൽ അത്രയും ഉപയോഗിക്കില്ല ഓഹ് നെറ്റ്വർക്ക് പ്രശ്നങ്ങളൊക്കെ ഒരുപാട് പ്രാവശ്യം ഇടയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് മെസ്സേജിടുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആയിരിക്കും നെറ്റ്വർക്കിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട് ഇല്ലാന്നല്ല പക്ഷേ താരതമ്യേന മുന്നത്തേതിനേക്കാൾ ഒരുപാട് കുറവാണ് ഇപ്പോൾ പ്രശ്നങ്ങളുണ്ടാവുന്നത് ഇപ്പം ഏത് തരം സിമ്മെടുത്ത് കഴിഞ്ഞാലും എന്നാൽ നെറ്റ്വർക്ക് മുക്കിന് മുക്കിന് ടവറൊക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് തന്നെ നെറ്റ് കണക്ഷൻ കിട്ടുന്നുണ്ട് ഇങ്ങനെ ഡാറ്റാ കൊ കുറവായിട്ടൊന്നും വരുന്നില്ല പിന്നെ മൊബൈൽ ഡാറ്റ തന്നെ നമുക്ക് കൂടുതൽ വേണമെങ്കിൽ ഇപ്പം അടയ്ക്കുന്ന പൈസയ്ക്ക് ചെറിയൊരു പൈസയുടെ വ്യത്യാസമെ വരുന്നുള്ളു പക്ഷേ എനിക്കധികം വേണ്ടാത്തതുകൊണ്ട് ഞാൻ അധികം എടുക്കുന്നില്ല ഡെയിലി എനിക്ക് ഒന്നേ പോയന്റ് അഞ്ച് ജീ ബീനെക്കൊണ്ടന്നെ മതിയാകുന്നുണ്ട് ഇപ്പോൾ നല്ല സ്പീഡ് തന്നെയാണ് കണക്ഷൻ ഉള്ളതും അപ്പോൾ വൈഫൈയേക്കാൾ എനിക്ക് വൈഫയുടെ ദുരുപയോഗം വരുന്നതുകൊണ്ട് മാത്രാമാണ് കേട്ടോ അപ്പോൾ നമ്മൾ വൈഫൈ ഇതാകുമ്പോൾ ഡാറ്റ തീരുമല്ലോ എന്ന് വെച്ചിട്ട് പരിപാടി കാണലൊക്കെ കുറച്ച് കുറയ്ക്കും വൈഫൈയാകുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ഫോണിൽ തന്നെ ഇരുന്ന് നമ്മുടെ മറ്റു പണികളൊക്കെ ഒഴിച്ചിടുന്നടത്തായി പോകും അപ്പോൾ ഒരു ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് മൊബൈൽ ഡാറ്റയിലോട്ട് മാറിയത്